ഉ കോവിഡ് ഇവിടെ ഇഷ്ടം പോലെ ബ്യാ കോവിഡ് ഉണ്ടാകാൻ കാരണം ആളുകളുടെ ശ്രദ്ധ കുറവു കൊണ്ടാണ് കോവിഡ് ഒ ഒ ഉണ്ടായത് എന്നു വെച്ചാൽ ആളുകൾ മിക്ക ആളുകളും ചെം മാ മാസ്ക് ധരിക്കത്തില്ല ബസ്സിൽ കയറിയാലും ഇറങ്ങി വന്നാലും കൈ കഴുകുകയോ തുണി മ കഴുകുകയോ കുളിക്കയോ ഇതൊന്നും ചെയ്യത്തില്ല അങ്ങനെയാണ് നമ്മളുടേ ശ്രദ്ധ ഇതെല്ലായിടവും ഇഷ്ടംപോലെ ഈ കോവിഡ് ആകാൻ കാരണം ഒരോ ഒരുപാട് ആളുകൾ മരിക്കുകയും ഒരുപാട് ആളുകൾക്ക് കുഞ്ഞുങ്ങൾക്കു വരെ ഇതുണ്ടാകുകയും കുഞ്ഞുങ്ങൾക്ക് പനി വന്നാൽപ്പോലും വീട്ടിരിത്തത്തില്ല അതു പെണ്ണുങ്ങൾ സ്കൂളിൽ പറഞ്ഞു വിടുകയും ഒക്കെ ചെയ്യും അങ്ങനെയാണ് കൊ വീട്ടുകളിൽ കൊണ്ടു വരുമ്പോൾ കുഞ്ഞുങ്ങളുടെ കൈ കഴുകുയോ കാലുകഴുകുകയോ കുളിപ്പിക്കയോ ഒന്നും ചെയ്യത്തില്ല നമ്മൾ എത്രയും ബസ്സിൽ നിന്ന് ഇപ്പോഴും ബസ്സിൽ നിന്ന് ഇറങ്ങി വന്നാൽ നമ്മൾ പെട്ടെന്നു ഹാൻഡ് വാഷോ സോപ്പോ ഇട്ടു കൈ തേച്ചു കഴുകണം കുഞ്ഞുങ്ങളെയും അതു പോലെ ശ്രദ്ധിച്ച് ആ ഡ്രസ്സ് പോലും ഊരി വെളിയിലിടണം എന്നാലെ നമുക്ക് നമ്മൾ ശ്രദ്ധിക്കണം ഒരുപാട് ശ്രദ്ധിച്ചാലെ ഈ ഇപ്പം ഇത് ഒഴുവാക്കാൻ പറ്റത്തുള്ളൂ ഒരുപാട് ഒരുപാട് ആളുകൾ മരിക്കുകയും കൊറോണ വന്നു വീട്ടുകളിൻ്റെ പുറത്തു പോലും പോകാത്ത അവസ്ഥയിലായിരുന്നു വീട്ടുകാർ അതു കൊണ്ട് ഇ ഇപ്പോഴും അത് വ ഒരു പനി വന്നാലും അത് പകരും എപ്പോഴും ആളുകൾ ഉദ്ധാ ചുമക്കുമ്പം പോലും മാസ്ക് വെക്കുകയോ കൈ കൊണ്ടു തപ്പി പിടിക്കുകയോ പോലും ചെയ്യാതാണ് കുഞ്ഞുങ്ങളുള്ളിടത്തു പോലും ഇപ്പോഴും ശ്രദ്ധിക്കുന്നില്ല ആൾക്കാർ അതു കൊണ്ട് ഒരുപാടു മരണങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടേ അതു കൊണ്ട് നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം ഡെറ്റോൾ ഒഴിച്ചായാലും നമ്മുടെ തുണി തുണിക്കകത്ത് ഡെറ്റോൾ ഒഴിച്ചായാലും കഴുകുകയും എടുക്കുകയും എല്ലാം ചെയ്യണം വാ വെളീ നാട്ടിൽ നിന്നൊക്കെ വന്നതാണ് അതാണ് ഈ കൊറോണ അതു കൊണ്ടു നമ്മൾ ഇനിയെങ്കിലും ഒരുപാട് ശ്രദ്ധിക്കുക വ ശ്രദ്ധിച്ചാൽ ഒരുപാട് ആപത്തുകളൊക്കെ ഒഴിച്ചു മാറാം ഇപ്പോഴും കുഞ്ഞുങ്ങളായാലും മുലയൂട്ടുന്ന കുഞ്ഞുങ്ങൾക്കായാലും തള്ളമാരായാലും ഒരുപാട് ശ്രദ്ധിച്ച് ഗർഭിണികളായാലും ഒരുപാടു ശ്രദ്ധിക്കണം കൊറോണ എന്നുവെച്ചാൽ അത് അത് പോലെയുള്ള ഒരു രോഗമായിരുന്നു ഇപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ആ വ വ വന്നു പെട്ടെന്നു തന്നെ കുഞ്ഞുങ്ങളെ കൊണ്ട് അങ്കനവാടിയിൽ പോയാലും സ്കൂളിൽപ്പോയാലും ബസ് യാത്ര ചെയ്താലും നമ്മളെവിടെപ്പോയിട്ട് വന്നാലും നമ്മൾ കൈ കഴുകുക എത്രയും മാസ്ക് വെച്ചു പോകാവുന്നത് വെച്ചാൽ അത്രയും ശ്രദ്ധിക്കുക അതു പോലെ വീട്ടുകളിലായാലും നമ്മൾ ഈച്ച ഈ കൊതു ചിരട്ടക്കകത്തൊക്കെ വെള്ളം കെട്ടി നിൽക്കുകയും ചരുവം പാത്രങ്ങളിലായാലും എല്ലാം വെള്ളം കെട്ടി നിൽക്കുന്നത് പെട്ടെന്ന് അത് എടുത്തു കളയണം അങ്ങനെയും ഉണ്ടാകാൻ സാദ്ധ്യത ഉണ്ട് അഴുക്കുകളും അതു പോലെ ഒരുപാട് എന്തോ എന്തെങ്കിലും എല്ലാം ഉണ്ടാകാൻ സാദ്ധ്യത ഉണ്ട് അതു കൂടുതൽ ശ്രദ്ധിച്ച് നമ്മൾ ഒന്നു നോക്കുക അന്നേരം നമുക്ക് ഒരുപാട് എന്തോ ഇതുങ്ങൾ മറ്റും ഹെൽത്ത് ഹെൽത്തിൽ നിന്നു തന്നെ നമ്മൾ വന്ന് അവർ നോക്കാൻ നമ്മൾ ഒരുപാടു വട്ടം നമ്മൾ ശ്രദ്ധിച്ച് അവരും വന്നു പറയുന്നതു ചിരട്ടക്കകത്തു വെള്ളം കെട്ടി നിൽക്കരുതെ കൊതുകു ശല്ല്യം പൊ അതുപോലെതന്നെ ഒരുപാട് കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണം കുഞ്ഞുങ്ങളെ പുറത്തോട്ടിറക്കരുത് അങ്ങനെയൊക്കെയാണ് എല്ലാവരും പറയുന്നതും പ്രവർത്തിക്കുന്നതുമെല്ലാം അതു കൊണ്ടു നമ്മൾ ഒരുപാട് ശ്രദ്ധിച്ചു നമ്മൾ കൈകാര്യം ചെയ്യണം നമ്മളെവിടെപ്പോയിട്ടു വന്നാലും കൈ ശുദ്ധിയാക്കണം കാലും കഴുകി കുളിക്കുക കുളിച്ചു കയറുകയാണെങ്കിൽ അത് ഏറ്റവും ഉത്ത് നല്ലതാണ് എന്നും